സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ എനിക്ക് ഭയങ്കരായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജെക്ട് എന്നു പറയുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു കാരണം ഫസ്റ്റിലത്തെ റീസൺ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ ആയിരുന്നു ആ ടീച്ചർ ഞങ്ങളെ അത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു എൻ്റെ ചെറുപ്പം തൊട്ടേ എൻ്റെ വലിപ്പം വരെയുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽപ്പോലും ഇതിൻ്റെ ഇടയിൽ രണ്ട് ടീച്ചേർസാണ് മാറി മാറി വന്നത് ഈ രണ്ടുപേരാണെങ്കിലും വളരെയധികം എന്താ പറയുക എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര പേർസണൽ ആയിട്ട് ഇഷ്ടമുള്ള ടീച്ചേഴ്സ് ആയിരുന്നു അത് അതുകൊണ്ടുതന്നെ എനിക്ക് ആ ഒരു വിഷയത്തോടും വളരേ അധികം ഇഷ്ടം വന്നുകൊണ്ടിരുന്നു പിന്നെ എന്താ പറയുകയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം അത് എൻ്റെ ഫേവറേറ്റ് സബ്ജെക്ട് ആവാനുള്ള കാരണം എന്താണെന്നു വച്ചാൽ എനിക്ക് ചെറുപ്പം തൊട്ട് പഠിക്കാൻ കൂടുതൽ താല്പര്യം എനിക്ക് മലയാളത്തേക്കാളും ഇഷ്ടം ഇംഗ്ലീഷ് ആയിരുന്നു നമ്മുടെ മാതൃഭാഷ മലയാളം ആണെങ്കിൽപ്പോലും എനിക്ക് കൂടുതലും ഇഷ്ടം ഇംഗ്ലീഷ് ആയിരുന്നു അതുപോലെ മറ്റു രാജ്യങ്ങളിൽ വലുതായിക്കഴിയുമ്പം അല്ലെങ്കിൽ ആ ഒരു ടെൻത്തിലൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമിൽ ആണെങ്കിൽപ്പോലും വലുതായിക്കഴിയുമ്പം എനിക്കൊരു എന്താ എനിക്ക് ഒരു ഫോറിൻ രാജ്യത്തുപോയി പഠിക്കണം ആ ഒരു ഇതിനകത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഫോറിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ കൂടുതലും മിണ്ടുന്നത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞാലാണ് ഫോറിനിലൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതിനുവേണ്ടി ഞാൻ കൂടുതലും ശ്രമിച്ചിരുന്നു കാരണം ഫോറിൻ രാജ്യങ്ങളിലേക്കൊക്കെ എത്തുമ്പം നമുക്ക് ഏറ്റവും അധികം വേണ്ടതും ഇംഗ്ലീഷ് ആണല്ലോ ഇംഗ്ലീഷ് വേറേ അവിടത്തൊരു ഭാഷ ഭാഷ അറിയില്ലെങ്കിൽപ്പോലും നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത് അല്ല നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇംഗ്ലീഷ് വച്ചിട്ടാണ് ഇപ്പോൾ ഏതൊരു ഏതൊരു മലയാളിയാണെങ്കിലും ഏതൊരു രാജ്യത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാമെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും ആ അതുപോലെ പക്ഷേ എല്ലാ കുട്ടികളുടേയും ഒരു ഫേവറേറ്റ് സബ്ജെക്ട് നോക്കിയാലും നമ്മൾ ആദ്യം പറയുന്നത് പി ടി എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും അതൊരു സബ്ജെക്ട് അല്ലെങ്കിൽപ്പോലും ജസ്റ്റ് നമുക്കൊരു പീരീഡ് ആയിട്ടു വരും ഈ പി ടി ആവുമ്പോൾ പിന്നെ നമുക്ക് എല്ലാവിടേയും കളിക്കാം പിന്നെ എനിക്ക് ഫേവറേറ്റ് സബ്ജെക്ട് ആയിരുന്നു ആർട്ട് ആൻ്റ് വർക്ക് എഡ്യൂക്കേഷൻ എന്നു പറയുന്നത് അതിനു ചേർന്നാൽ നമുക്ക് ഡാൻസ് പാട്ട് അങ്ങനെ എല്ലാം കൈകാര്യം ചെയ്യാം അപ്പോൾ എനിക്ക് അത് വളരേ ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ അത് കൈകാര്യം ചെയ്തിരുന്നു അതുപോലെ അത് നല്ല രീതിക്കുതന്നെ ഞാൻ ഉന്നത വിജയം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെയായിരുന്നു എനിക്ക് ഇംഗ്ലീഷും ഇംഗ്ലീഷ് എന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്ട് ആയിരുന്നു അതിൻ്റെ മെയിൻ റീസൺ ഞാൻ പറഞ്ഞതുപോലെ ടീച്ചർ തന്നെയായിരിന്നു വളരേ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ടീച്ചേഴ്സ് എന്ന് നമുക്കൊരു ടീച്ചറെ ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ആ സബ്ജെക്ടിനോട് കൂടുതൽ ക്രേസ് വരുന്നത് അപ്പം എൻ്റെ ചെറുപ്പം തൊട്ടു വലിപ്പം വരെ ഏറ്റവും കൂടുതൽ എനിക്ക് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സബ്ജെക്റ്റും ഇംഗ്ലീഷ് തന്നെയായിരുന്നു എ പ്ലസ്സിൽ കുറഞ്ഞിട്ടുതന്നെ ഇല്ല അത്രയും ഒരു ഇതായിരുന്നു എനിക്ക് ഇംഗ്ലീഷിനോട് ഉണ്ടായിരുന്നത്